കേരളത്തിൽ ഒത്തിരി സാംസ്കാരിക വിനോദ പരിപാടികളുണ്ട് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാംസ്കാരിക വിനോദ പരിപാടിയാണ് വള്ളം കളി ഇപ്പം വള്ളംകളി തന്നെ പല രീതിയിൽ നടത്തപ്പെടുന്നു നഹ്രു ട്രോഫി രാജീവ് ഗാന്ധി വള്ളം കളിയും പിന്നെ മൂലം വള്ളം കളി അങ്ങനെ അത് ആലപ്പുഴയുടെ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രദേശത്തെ ബന്ധപ്പെടുത്തിയുള്ള പരിപാടിയാണ് അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരം അങ്ങനെ ഓരോ പ്രദേശത്തെ ബന്ധിച്ചു ഇങ്ങനെ ഓരോ ഇപ്പം ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ ഒത്തിരി പരിപാടികളുണ്ട് അതുപോലെ എല്ലാ രീതിയിലും ഓരോ പ്രദേശത്തെ ബന്ധിപ്പിച്ചു ഒത്തിരി പരിപാടികൾ നടക്കുന്നു ഇ തിരുവനന്തപുരത്ത് ഈ സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിം ഫെസ്റ്റിവല് നടത്താറുണ്ട് പിന്നെ കോട്ടയത്ത് പുഷ്പമേള നടക്കാറുണ്ട് അതുപോലെ തന്നെ ഊട്ടി പുഷ്പമേള ഇപ്പോൾ വയനാട്ടിലെ പുഷ്പമേള നടക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള സാംസ്കാരിക വിനോദപരിപാടികൾ നടത്തുന്നത് അതുപോലെ തന്നെ കാള കാളകൊണ്ട് കാളയോട്ടം പിന്നെ കുതിരപ്പന്തം അങ്ങനെ ഒത്തിരി ഒത്തിരി വിനോദ പരിപാടി ഇത് മനുഷ്യർക്ക് മനുഷ്യരുടെ മനസ്സിനെ മനുഷ്യൻ്റെ മനസ്സിന് ഒത്തിരി ആനന്ദവും അവരുടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജിയും നൽകുവാൻ വേണ്ടിയാണ് ഈ വിനോദ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ന്യൂ ഇയറ ആകുമ്പോഴത്തേക്കും എറണാകുളമൊക്കെ മറേൻ ഡ്രൈവിലെ ന്യൂ ഇയർ ആഘോഷം നടക്കുന്നു അതുപോലെ തന്നെ പിന്നെ ആലപ്പുഴ ബീച്ച് ഫസ്റ്റ് പിന്നെ കോഴിക്കോട്ട് കോഴിക്കോട്ട് ഫെസ്റ്റ് കോഴിക്കോടൻ ഫെസ്റ്റ് നടത്ത്ന്നു അങ്ങനെ പല രീതിയിൽ പിന്നെ പരിപാടികൾ നടക്കാറുണ്ട് ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിലും പിന്നെ ക്രിക്കറ്റുകളി ഫുട്ബോള് പിന്നെ ചെസ്സ് അതുപോലെ വോളിബോള് ഇതൊക്കെ മനുഷ്യർക്ക് ഉല്ലാസത്തിന് വേണ്ടിയും അവടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പല രീതിയിൽ ഇങ്ങനെ വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നെ സാംസ്കാരിക വിനോദ പരിപാടി ഇപ്പോൾ പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഫസ്റ്റാണ് ഫിലിം ഫസ്റ്റ് അവിടെ ചെന്നു കഴിയുമ്പോഴത്തെ നമുക്ക് ഒരു ഒരു ഭയങ്കര ഒരു മനസ്സസിന് ഒരു വലിയ ആനന്ദമാണ് തോന്നുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ സാംസ്കാരിക പരിപാടികൾ ഒത്തിരി നല്ലതാണ്